ആ ഞാൻ മകളെ ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നേ ആ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചേ ആ ആ ആ ആ ആ ആ

ഞങ്ങളിവിടെ മാനന്തവാടി തന്നെയാണ്

ആ അതിനൊക്കെ വേറെ ഫീസ് തന്നെയാണോ ഈ അമ്പതിനായിരത്തിൽ തന്നെ ഉള്ളതാണോ ആ ആ ആ

ആ ആ ആ ആ

ആ ആ ആ

ആ ഒരാളെയേ ചേർക്കാൻ ഉള്ളൂ പിന്നെ അപ്പം യൂണിഫോമൊക്കെ അവിടെ നിന്നുതന്നെ കിട്ടുമോ അല്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് ആ ആ ആ അപ്പം രണ്ട് കളറാണോ അതായത് ആ ആ ആ ആ

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ എന്നാൽ ഇല്ല ജോലിയൊന്നും ചെയ്യുന്നില്ല

ആ ഓക്കെ ഓക്കെ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ശരി വേറെ ഒന്നുമില്ല ഇനി നേരിട്ട് എന്തേങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വരുമ്പോൾ ചോദിക്കാമല്ലോ ആ ചേർക്കാൻ വരുന്നുണ്ട് ആ ആയിക്കോട്ടെ ആ ശരി